ആ ചേച്ചി ഞാനുണ്ടല്ലോ ഒരു എൻ്റെ ഗ്യാസ് സിലിണ്ടറ് തീർന്നുപോയി ഞാൻ ബുക്ക് ചെയ്തു എനിക്കടുത്ത ആഴ്ച്ചയിലേ കിട്ടത്തുള്ളു പക്ഷേ ഉണ്ടല്ലോ എനിക്കത് അത്യാവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി അവിടെയുണ്ടോ സിലിണ്ടറ് സ്പെയറ് വല്ലതും ഇരിപ്പുണ്ടോ ഉണ്ടോ ആ എനിക്കത് തരണേ കേട്ടോ അപ്പം ആ ആ ഹലോ ഗ്യാസ് ഏജൻസിയല്ലേ ഞാനേ ഞാനൊരു സിലിണ്ടറിന് ബുക്ക് ചെയ്തിരുന്നു എൻ്റെ ബുക്കിങ്ങ് നമ്പർ ഫൈവ് ത്രീ ഫൈവ് ത്രീ ആണേ അപ്പം ഞാൻ എനിക്ക് അടുത്ത ആഴ്ച്ച ഇത് തരാം എന്നു നിങ്ങൾ പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോൾ കിട്ടി കേട്ടോ എൻ്റെ അടുത്തുള്ളവർ എൻ്റെ സുഹൃത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവർ തരാം എന്നു പറഞ്ഞ് തന്നു അപ്പം അതുകൊണ്ട് അത് ക്യാൻസലാക്കുകയാണേ എനിക്ക് ഇപ്പം ഒടനെ വേണ്ട കേട്ടോ ഓക്കെ താങ്ക് യു